ഹലോ റിലാക്സ് റെസ്റ്റോറന്റ് അല്ലേ ഞാനവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ബിരിയാണി ഒരു അഞ്ചെണ്ണം ആ ചിക്കൻ മതി ചിക്കൻ ഒരു മൂന്നെണ്ണം എടുത്തോ ഒരു രണ്ട് ഇതും എടുത്തോ ബീഫും ആ ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്താണ് വെച്ചു കഴിഞ്ഞാൽ കൂടിക്കാൻ ഇപ്പോൾ അവിടെ എന്താണ് ഉള്ളത് എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ അതായതൊരു ആ ഒരു സെവൻ അപ്പ് എടുത്തോ പിന്നെ ഒരു രണ്ട് ലിറ്ററിന്റെ ഒരു ഇതും സ്പ്രൈറ്റും ഓക്കെ ഓക്കെ പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്താണ് വെച്ചാൽ ആദ്യം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു കൂപ്പൺ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു കൂപ്പൺ ആയിട്ട് ആ അതെ അതെ അന്ന് അന്നൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും കിഴിവ് കാര്യങ്ങൾ അറിയാൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ അതെ അതെ അതെ അത് നമുക്ക് ഡിസ്കൗണ്ട് അതായത് എനിക്ക് കിട്ടിയിരിക്കുന്ന കൂപ്പണിൽ ഞാൻ ഉരച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഫിഫ്റ്റി പെർസന്റേജ് ആണ് ഓഫർ കാണിക്കുന്നത് ആ അതെ അതെ ഞാനത് വാട്സാപ്പ് ഇട്ടുതരാം ഞാൻ ഇട്ടു കാണിച്ചുതരാം ഇല്ല അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയാനൊന്നും ആയിട്ടില്ല അതിനകത്ത് രണ്ട് മാസമാണ് കാണിക്കുന്നത് ഞാൻ ഒരു ഒരു മാസം ആയിട്ടേ ഉള്ളൂ ഞാനവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനത് വാട്സാപ്പിൽ ഇട്ടുതരാം അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഒന്ന് കിഴിവ് ചെയ്തു തരണം ഓക്കെ എന്നാൽ